രണ്ടാമതായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് മേടിച്ചത് മീഷോ നിന്നാണ് മീഷോ എന്ന് പറഞ്ഞാൽ ഓരു ചീപ്പസ്റ്റ് നമുക്ക് ഒരു പ്ലാറ്റ് ഫോമാണ് അതായത് നമുക്ക് നല്ല ചീപ്പ് ആകും അതായത് വില കുറവിൽ പിന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ ഒക്കെ വാങ്ങാൻ പറ്റും അതില് നമ്മൾ വാങ്ങണം എന്ന് ഉണ്ടെങ്കിൽ റേറ്റിംഗ് ഒക്കെ അനുസരിച്ചിട്ടാണ് നോക്കി വാങ്ങുക ആ ഈ മീഷോ എന്ന് പറയുന്ന ആപ്പിൽ തന്നെ നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ചെരുപ്പ് കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു ആപ്പാണ് മാത്രമല്ല ഞാന് രണ്ടാമതായിട്ടാണ് ഒരു ഡ്രെസാണ് അതായത് ജീൻസ് പാൻറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഒരു ബ്ലാക്ക് ജീൻസ് പാൻറ്റായിരുന്നു ഹൈ വൈസ്റ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റ് ആയിരുന്നു നല്ല ഫിറ്റായിട്ട് കിടക്കുന്ന ഒരു പാൻറ്റ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് വന്നത് ഒരു പാവാടയാണ് വന്നത് എനിക്ക് അത് ഒരു എ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു മീഷോ നിന്ന് കാരണം നമ്മൾ ഇപ്പോൾ ഒരു സാധനം ആഗ്രഹിച്ച് വാങ്ങുമ്പോൾ നമ്മൾ അതിനെ കുറെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കോലോ അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ഞാന് പാക്കിങ് ഒക്കെ പൊളിച്ച് അതിൻ്റെ നോക്കിയപ്പോൾ ഭയങ്കര പാവാടയെന്ന് വെച്ചാൽ അതിലാണെങ്കിൽ കീറി പാറി ഒരു കാണാൻ തന്നെ ഒരു രസം ഇല്ല നമുക്ക് നല്ലതാണ് കിട്ടിയത് എങ്കിലും ഇട്ട് നടക്കെങ്കിലും ചെയ്യാം അതിന് ഒന്നും പറ്റൂല ഭയങ്കര ബാഡ് നല്ല ചീത്ത എക്സ്പീരിയൻസാണ് എനിക്ക് മീഷോ നിന്ന് മാത്രമല്ല അതില് കറക്റ്റ് സൈസും കാര്യമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്